എൻ്റെ പ്രദേശത്ത് നദികളുണ്ട് നദികൾ അത് നന്നായി പരിപാലിക്കുന്നില്ല കാരണം ഞങ്ങളുടെ അവിടെ വരുന്ന സഞ്ചാരികൾ അവിടെ വേസ്റ്റ് കൊണ്ടുപോയിട്ടും പ്ലാസ്റ്റിക്കുകള് കൊണ്ടുപോയിട്ടും ആ നദീനെ ഭയങ്കരമായിട്ടും മലിനമാക്കുകയാണ് അതേ സമയം അവിടെ ബോട്ടിംഗൊന്നും നടക്കില്ല കാരണം അതൊരു ചെറിയ നദിയാണ് അതിനാൽ ബോട്ടിംഗൊന്നും നടക്കില്ല ആ പിന്നെ വെള്ളപ്പൊക്കം ഒരു പ്രാവശ്യം ആ ഒന്നല്ല കുറേ തവണ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി അവിടെ ഒരു പാലം ഉണ്ട് പാലത്തിൻ്റെ മണ്ടേ കൂടെ പോയി ആൾക്കാർക്ക് ഗതാഗതം തടസ്സപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ട് വീടുകളിലോട്ട് വെള്ളം കയറി ഭയങ്കര ഗുരുതരമായായിരുന്നു ആ രണ്ടായിരത്തി പതിനെട്ടില് ആ സമയത്താണ് ഇത് ഉണ്ടായത് വെള്ളപ്പൊക്കം ഉണ്ടായത് മത്സ്യബന്ധനം മത്സ്യബന്ധനം ഒന്നും നടക്കില്ല കാരണം അത്രയും വലിയ നദിയൊന്നും അല്ല ചെറിയ നദിയാണ് ബോട്ടിംഗും നടക്കില്ല ചെറിയ നദി ആയതിനാൽ പക്ഷേ നമ്മുടെ ആ നദീനെ ഭയങ്കരമായിട്ടും മലിനമാക്കി അതിനെ അതിൻ്റെ ഭംഗി അതിന്ന് ആ നദിയുടെ ഭംഗി വളരെ അധികം കളയുന്നുണ്ട് സഞ്ചാരികൾ പിന്നെ നാട്ടുകാര് തന്നെ അടുത്തുള്ള വൃക്ഷങ്ങള് വെട്ടിക്കളഞ്ഞ് മണ്ണിടിച്ചിലുണ്ടാക്കുന്നുണ്ട് അങ്ങനെ മണ്ണിടിഞ്ഞ് വന്ന് അതും നേരെ നദിയിലോട്ട് വീണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ നദീനെ പരിപാലിക്കാൻ നാട്ടുകാരോ അല്ലെങ്കിൽ സഞ്ചാരികള് വരുന്ന സഞ്ചാരികള് അതിനെ പറ്റി നോക്കുന്നില്ല നോക്കാതെ വേസ്റ്റുകള് മൊത്തം അതിലോട്ടിടുന്നു കൂടെ നാട്ടുകാരാണേ പോലും ആ നദീനെ പരിപാലിക്കാണ്ട് ചുമ്മാ വിട്ടിരിക്കുന്നതുകൊ ണ്ട് ഭയങ്കരം മലിനമായിട്ടാണാ നദി പോകുന്നത്